പറയണമല്ലേ ഞാന് പറയാം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ആറ്